ആ പറഞ്ഞോളൂ ആ ഓക്കെ കണ്ണൂരുള്ളത് ഏകദേശം മൂന്ന് ദിവസത്തെ ടൂർ അല്ലേ മാഡം പ്ലാൻ ചെയ്യുന്നത് അപ്പോൾ കണ്ണൂർ ആ അപ്പം ഏ മാഡം ഏകദേശം ഏത് ഡേറ്റിനാണ് വരുക ആ ആ ഓക്കെ ആ ആ ഓക്കെ കണ്ണൂർ ആവുമ്പോൾ നമുക്ക് കണ്ണൂർ മെയിൻ ആയിട്ടുള്ളത് പാലക്കെയൻ തട്ട് പൈതൽ മല ഇങ്ങനത്തെ രണ്ട് സ്ഥലങ്ങൾ ഉണ്ട് അപ്പോൾ അത് ന ട്രക്കിങ്ങ് പോലത്തെ സ്ഥലമാണ് അപ്പോൾ അവിടെ നല്ല രസമായിരിക്കും കാണാൻ വേണ്ടിയിട്ട് പ്രകൃതി ഭംഗിയും പച്ചപ്പൊക്കെ ആസ്വദിക്കാൻ വേണ്ടിയിട്ട് അവിടെ നമുക്ക് രാവിലെ ഒരു കുറച്ച് രാവിലെ ഇറങ്ങിയാൽ നമുക്കൊരു ഉച്ചയാവുമ്പോഴേക്ക് കഴിയുന്ന രീതിയിൽ വരാൻ പറ്റും പിന്നെ ഉള്ളത് നമുക്ക് ഇവിടെ പയ്യാമ്പലം ബീച്ച് അത് നമുക്കൊരു വൈകുന്നേരം ആ സമയത്ത് പോവാൻ പറ്റും പിന്നെ കുട്ടികളൊക്കെ ഉള്ളത് കൊണ്ട് നമുക്ക് വിസ്മയ പാർക്ക് ഉണ്ട് അത് നിങ്ങൾക്ക് ഓക്കെ ആണെങ്കിൽ നമുക്ക് അമ്യൂസ്മെന്റ് പാർക്ക് പോലെ ഒരു ദിവസം അവിടെയും പോവാം പിന്നെ ഉള്ളത് ഇവിടെ കണ്ണൂർ കോട്ടയുണ്ട് കണ്ണരുമുണ്ട് കോട്ട തലശ്ശേരിയുമുണ്ട് നമുക്ക് രണ്ട് സ്ഥലത്തായിട്ട് പ്ലാൻ ചെയ്യാം നമുക്കൊരു ദിവസം കണ്ണൂരും ഒരു ദിവസം തലശ്ശേരിയും രണ്ട് ദിവസം കണ്ണൂരും ഒരു ദിവസം തലശ്ശേരിയുമായിട്ട് സ്റ്റേ ഞാൻ അറേഞ്ച് ചെയ്ത് തരാം പിന്നെ ഉള്ളത് കണ്ണൂർ ആ തെയ്യങ്ങളെന്ന് വെച്ചാൽ നമുക്കൊരു ഫെബ്രുവരി ലാസ്റ്റിലോട്ട് തെയ്യങ്ങൾ തിറകളൊക്കെ ഏകദേശം കഴിയും നമ്മുടെ മെയിൻ ആയിട്ടുള്ളത് പക്ഷേ മാഡം മാർച്ച് ലാസ്റ്റിലോട്ടല്ലെ വരൂ അപ്പോൾ നിങ്ങള വീടിൻ്റെ അടുത്തുള്ള ചെറിയ രണ്ട് മൂന്ന് അമ്പലത്തിലുള്ള തെയ്യങ്ങളും പിന്നെ പറശ്ശിനിക്കടവിൽ പോവാം നമുക്ക് കണ്ണൂരുള്ള മെയിൻ ഒരു അമ്പലമാണ് പറശ്ശിനിക്കടവിൽ അപ്പം അവിടെ മുത്തപ്പൻ്റെ ക്ഷേത്രമാണ് അവിടെ വെള്ളാട്ടമൊക്കെ ആയിട്ടുണ്ടാവും തിറേൻ്റെ സമയം തെയ്യം തിറേൻ്റെ സമയം വെക്കേഷൻ ആവുമ്പോഴേക്ക് കഴിയും പക്ഷേങ്കിൽ നമുക്ക് വീട്ടിൻ്റെ അടുത്ത് ഒന്ന് രണ്ട് സ്ഥലങ്ങളുണ്ട് അവിടെ നമുക്ക് പോവാം പിന്നെ ഉള്ളത് തലശ്ശേരിയിലാവുമ്പോൾ നമുക്ക് ധർമടം തുരുത്ത് മുഴപ്പിലങ്ങാട് ബീച്ച് മാഡം കേട്ടിട്ടുണ്ടാവും അല്ലേ ഡ്രൈവിംഗ് ബീച്ച് ആ ആ ഓക്കെ അപ്പോൾ നമുക്ക് അതെയതെ കേരളത്തിലെ ഒരേയൊരു ഡ്രൈവിംഗ് ബീച്ച് ആണ് അപ്പോൾ നമുക്കൊരു വൈകുന്നേരം സമയങ്ങളിൽ അവിടെയും പോവാം അതുപോലെ കണ്ണൂരുള്ളത് പോലെ തന്നെ തലശ്ശേരി കോട്ടയുമുണ്ട് പക്ഷേ കണ്ണൂരിന്റെ അത്ര വലുപ്പമില്ല എന്നാലും നമുക്ക് തലശ്ശേരി കോട്ടയിലും കൂടിയിട്ട് ഒന്ന് പോവാം പിന്നെ മെ ഫേമസ് ആയ അമ്പലങ്ങളിലൊക്കെ പോവാം പക്ഷേ ഇവിടുത്തെ ആചാരങ്ങൾ അനുഷ്ഠാനങ്ങളൊക്കെ കാണാൻ പറ്റും പക്ഷേ നമ്മൾ തിറ തെയ്യമായിട്ടുള്ള ഫേമസ് ഉള്ള അമ്പലത്തിലൊക്കെ ലാസ്റ്റിലൊക്കെ മാർച്ച് ലാസ്റ്റിലോട്ടാവുമ്പോഴേക്ക് കഴിയും ആ ഓക്കെ മാം ഹോം സ്റ്റേ ആണോ അല്ലെങ്കിൽ നോർമൽ ഫ്ലാറ്റ് മതിയോ മാമിന്

ആ അതെയതെ ആ ഓക്കെ ഓക്കെ മാം വരുന്നതിൻ്റെ ഒരു ഒരാഴ്ച മുന്നേ പറഞ്ഞാൽ ഞാൻ പ്ലാൻ മൂന്ന് ദിവസത്തെ പ്ലാൻ ഞാൻ ജസ്റ്റ് മാഡത്തിന് അയച്ച് തരാം പിന്നെ ഫോട്ടോസ് നമ്മുടെ മാം പോവുന്ന സ്ഥലത്തുള്ള ഫോട്ടോസും കൂടെ അറേഞ്ച് ചെയ്ത് തരാം ഓക്കെ മാം ഓക്കെ മാം താങ്ക് യൂ